ഞാൻ അങ്ങനെ കളിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ പല രീതീലുള്ള ഗെയിമുകൾ കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവും ഇപ്പോഴൊക്കെയാണ് പബ്ജീം അങ്ങനെയുള്ള ഗെയിമുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടക്ക് പബ്ജി ബാൻ ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കളിച്ചിട്ടത് കൊറോണ ടൈമിലാണ് ആ ടൈമിൽ നമ്മളെല്ലാരും ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സമയം കാലഘട്ടങ്ങളാണ് ഈ കൊറോണ കഴിഞ്ഞ ഒരു രണ്ട് വർഷം നീണ്ട കാലയളവിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ വെറുതേ നമ്മൾ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെയായിരുന്നു ആ സമയത്താണ് ഞാൻ കൂടുതലായിട്ടും ഗെയിമ് കളി ഒരു ആനന്ദകരമായിട്ട് കൊണ്ട് നടന്നത് പക്ഷെ അത് നിർത്തണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഉള്ളൊരു കളിയും കാര്യങ്ങളൊക്കെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നിർത്താൻ വേണ്ടീട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളു വീട് വിട്ടു പുറത്തിറങ്ങുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊരു രണ്ട് വർഷക്കാലത്തോളം നീണ്ട് നിന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് ഞാൻ ഗെയിമ് കളി ഒക്കെ അവസാനിപ്പിച്ച് ജോലിയിലെക്കെ പ്രവേശിക്കാൻ തുടങ്ങിയത്